എൻ്റെ പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻറെ പ്രോഡക്റ്റ് ബെഡ് ആണ് ബെഡ് അത്യാവശ്യം നല്ല ബെഡ് ആണ് ഇങ്ങനെ കിടക്കാൻ ഒക്കെ നല്ല സുഖമുണ്ട് നല്ല അതായത് നല്ല പിന്നെ കിടക്കാൻ ഒക്കെ സുഖമാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ ഞാൻ ഫാമിലി കോട്ട് ആണ് അപ്പോൾ ഒരു നാല് പേർക്ക് എങ്ങനെയാണെങ്കിലും കിടക്കാം അപ്പം അങ്ങനെയൊരു ഉപകാരമാണ് പിന്നെ ഇതിൻറെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് സ്പോഞ്ച് ആണ് മേലെ എന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് ചകിരിയാണ് അപ്പോൾ നമുക്ക് കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ നമുക്ക് അതായത് മഴക്കാലത്ത് നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല പക്ഷേ വേനൽക്കാലത്ത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര പ്രശ്നങ്ങളാണ് വേനൽക്കാലത്ത് ഇപ്പോൾ ഉച്ചയ്ക്ക് ഒക്കെ നമുക്കൊന്നു ഉച്ചയ്ക്കൊക്കെ ഒന്ന് ഉറങ്ങണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും നമുക്ക് ഭയങ്കര ഉഷ്ണമായിരിക്കും നമുക്ക് പുറത്തുനിന്നോക്കെ ഭയങ്കര ചൂട് എടുക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും തലയൊക്കെ വിയർക്കാൻ തുടങ്ങും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അതാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണിയൊന്നും അത്ര ക്വാളിറ്റി ഇല്ല അതായത് കിടക്ക കിടക്ക തുന്നിയിരിക്കുന്ന തുണി അത് വലിയ ക്വാളിറ്റി ഇല്ല വേറെ പ്രശ്നമൊന്നുമില്ല